നമ്മുടെ വീടിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ ഉള്ള കടമ നമുക്ക് തന്നെയാണ് ഉള്ളത് നമ്മളോരോരുത്തരും മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാനും അതേപോലെ നമ്മളെ ചുറ്റുപാട് ചുറ്റുപാടുകളെയും വൃത്തിയായി സൂക്ഷിക്കാനും കഴിയുകയുള്ളൂ നമ്മളോരോരുത്തരും അപ്പുറത്തെ വീട്ടിലേക്ക് ഈ ചപ്പുചവറുകൾ വലിച്ചു എറിഞ്ഞാൽ തന്നെ എങ്ങനെയാണ് സമൂഹം വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയുക ഈ ചുറ്റുപാടുകളും നശിച്ചുപോകുമെന്നല്ലാതെ ഒരിക്കലും ഇത് വൃത്തിയാവില്ല അതുകൊണ്ടുതന്നെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി ചില മാർഗങ്ങൾ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് എന്തൊക്കെയാണെന്ന് വച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും ബയോഗ്യാസ് പ്ലാൻറ്കൾ സ്ഥിതി സ്ഥിതീകരിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ ഭക്ഷ്യ വേസ്റ്റുകളും അതേപോലെത്തന്നെ അളിഞ്ഞു പോകുന്ന സാധനങ്ങളും എല്ലാം നമുക്ക് ഇതിലിട്ട് പിന്നെ ഗ്യാസായി ഉപയോഗിക്കാം അതേപോലെത്തന്നെ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് ഈ വേസ്റ്റ് കളക്റ്റ് ചെയ്യാൻ വേസ്റ്റ് കൊണ്ടുപോകാൻ വന്ന വരുന്നവരുടെ അടുത്ത് കൊടുത്ത് നമുക്കത് നിക്ഷേപിക്കാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രകൃതിയെ സൂക്ഷിക്കാനും അതുപോലെ വീടിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ പ്രത്യേക സൂക്ഷിക്കാൻ കഴിയും